ഇപ്പോൾ ഞങ്ങളുടെ സ്ഥലത്താണേൽ പരമ്പരാഗതമായിട്ടുള്ള കളിയേതാന്നു ചോദിച്ചാൽ നാടൻ പന്തു കളി അത് അത് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു കളിയാണ് അത് ഞാൻ കളിക്കാൻ പഠിച്ചത് തന്നെ കണ്ടാണ് ഞാൻ ശരിക്കും ഇത് പഠിക്കുന്നത് അപ്പം അത് കണ്ടപ്പോൾത്തന്നെ എനിക്കെന്തോ ഒരു പ്രത്യേകതരം തോന്നി പലയിടത്തുംഅതിനു പലപേരാണ് ചിലയിടത്ത് അതിനെ വെട്ടുപന്തെന്ന് പറയും ചിലർ നാടൻ പന്ത് കളീന്നു പറയും അപ്പം അത് ഇവിടെ അത് വളരെ പോപ്പുലറാണ് അപ്പം ഒട്ടുമിക്ക എല്ലാ ആൾക്കാരും എല്ലാവരും ഇവിടെ ഉള്ള എല്ലാവർക്കും അത് ശരിക്കും കളിക്കാൻ അറിയാം അത് വളരെ രസകരമാണ് നമ്മളത് വളരെ ത്രില്ലടിച്ചാണ് അത് തുടങ്ങി കഴിഞ്ഞാൽ നമ്മളെന്തായാലും അത് പെട്ടന്നൊന്നും അങ്ങ് നിർത്തില്ല നമ്മൾ എവിടെ ഇപ്പോൾ കളി നിർത്തി കുറച്ചു നേരം കുറച്ചു ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ കുറച്ചു നാൾ കഴിയുമ്പോൾ പിന്നെ എവിടേലും പോകുമ്പോൾ ഇങ്ങനെ കളി കണ്ടു നമ്മളങ്ങനെ നിന്ന് ഇങ്ങനെ കണ്ടു പോകും കണ്ടു പോകും നമ്മൾ അപ്പം നമ്മൾ ഒരുപ്രാവശ്യം കളിച്ചു കഴിഞ്ഞാൽ ആ കളി നമ്മളുമായിട്ട് അത്ര അട്ട്രാക്ടഡ് ആകും മാത്രമല്ല അതുമായിട്ട് അറ്റാച്ചിട് ആയി കഴിഞ്ഞാൽ പിന്നെ ആ കളി നമ്മൾ എപ്പോഴും തുടരുക തന്നെ ചെയ്യും